ഹലോ ഹലോ അതേ അതേ അതേ അതേ അതേ കാര്യമെ നമ്മൾ ഞാൻ അതൊന്നും വിചാരിക്കരുത് നമ്മളീ ചെമ്മീനെന്നു പറഞ്ഞാൽ ബുക്ക് ഇവിടെ വന്നെ പിന്നെ ഇതിനെ ഇവിടെ ഒന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല കാര്യം അത് അത് പോലെ ഓട്ടമാണ് കാര്യം ഓരോരുത്തരും അതു വായിച്ച് അവരത് പറയുന്നതനുസരിച്ച് എന്നിട്ട് കൂട്ടുകാരോടൊക്കെ പറയുന്നതനുസരിച്ച് അവരെല്ലാം വന്നത് മേടിക്കുന്നുണ്ട് ഇപ്പം നമുക്കിപ്പം ഞാനാണെങ്കിൽ ഇപ്പം നേരത്തെ ഒരു ബുക്ക് ഒരാഴ്ച നമുക്ക് വെക്കാൻ ഇത് ഒരാളുടെ കൈവശം വെക്കാൻ ഒരവകാശമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഈ ബുക്ക് കാരണമാണല്ലോ നമുക്കത്രയും ഒന്നു പോലും പറ്റുന്നില്ല നമ്മൾ അവരോടു തന്നെ പറഞ്ഞ് എത്രയും വേഗം ഒന്നു വായിച്ചിട്ട് എത്രയും വേഗം ഇങ്ങു വരണം കാര്യം ഒത്തിരിപ്പേര് ഇങ്ങനെ നിൽക്കുകയാണെന്നു പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞായിരുന്നത് അതായത് തകഴിയുടെ മറ്റുള്ള പല കൃതികളും വായിച്ചിട്ടുണ്ട് പക്ഷെ ഈ ചെമ്മീൻ എന്നത് ഒന്നു വായിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാൽ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഈ ബുക്ക് കിട്ടാതെ നമുക്ക് വായിക്കാൻ പറ്റുകയില്ലല്ലോ ഞാൻ എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കോപ്പി വേറെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞാനത് ചോദിക്കുന്നുണ്ട് പ്രസാദകരോടൊക്കെ ഒന്നു വിളിച്ചു ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവരുടെ കൈയ്യിലും സ്റ്റോക്ക് ഇല്ല കാര്യം ഇതു തന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ അപ്പം നമുക്ക് അത് എത്രയും വേഗം ഒന്ന് ആ ഒരു അത് എങ്ങനെയെങ്കിലും ഒരു കോപ്പി എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അല്ലെങ്കിൽ അതായ അതായത് മലയാളത്തിലെ മലയാളത്തിലെ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു സാറുണ്ട് അപ്പം ഇതു റിസർച്ചിൻ്റെ ഗൈഡാണ് അപ്പം സാറാണ് ഇതെടുത്തിരിക്കുന്നത് തകഴിയുടെ കൃതികൾ എന്നും പറഞ്ഞിട്ടെ അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അവർ റിസർച്ച് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സ്റ്റുഡൻറ്സിന് അതു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതു ഞാനത് സാറിനോട് ഒന്നു ഞാൻ ചോദിക്കാം എത്രയും വേഗം ഒന്ന് എത്തിക്കുകയായിരുന്നെങ്കിൽ അതു നല്ലതായിരുന്നു എന്നു ഞാൻ പറയാം കാര്യം ഒത്തിരിപ്പേർ ഇങ്ങനെ വന്ന് അപ്പോൾ ലൈബ്രറി ആയിട്ട് ഇരിക്കും ബുക്സ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ

അതേ അതേ

അതു നല്ല നല്ല ഒരാശയമാണ് നല്ല ഒരു ആഗ്രഹമാണ് കാര്യം നമുക്കെ ഈ ബുക്ക് എത്രയും വേഗമെന്ന് അതേ അതേ എത്രയും വേഗം തന്നെ അതു നമുക്ക് അതു സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു നമുക്ക് കാര്യം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം ആ പ്രസാദകർ ചിലപ്പോൾ അവർ അടുത്ത ദിവസങ്ങളിൽ അവരീ വഴി വരുന്ന അവർ സംഘടിപ്പിച്ചു തരാമെന്നു പറഞ്ഞായിരുന്നു അതല്ലെങ്കിൽ ഞാനീ

അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഞാനെ സാറിനോടൊന്നു ചോദിക്കാം കാര്യം സാർ ചിലപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ വരാറുണ്ട് ലൈബ്രറിയിൽ വരും അപ്പം ആ വരുമ്പം അതിനു മുന്നെയൊന്ന് ഞാൻ സാറിനെ ഒന്നു വിളിച്ചിട്ട് ഞാനുടനെ തന്നെ വിളിച്ചോളാം കാര്യം ആ ഒരു ഈ ഒരു ബുക്ക് അതു കിട്ടാനായിട്ട് ഒത്തിരിപ്പേർ വന്നു ചോദിക്കുന്നുണ്ട് കാര്യം ഇന്നു വൈകുന്നേരം ആണെങ്കിൽ എന്തായിപ്പോൾ വൈകുന്നേരം ആണെങ്കിലും വന്നൊന്നു മേടിച്ചോളാമല്ലോ അല്ലേ കിട്ടുകയാണെങ്കിൽ അതേ അതേ അതേ അതേ

അതേ അതേ ഞാനെ അപ്പം ആ ഞാനിപ്പോൾ സാറിനെ ഒന്നു വിളിച്ചോളാം സാർ വരുന്ന സാർ വൈകുന്നേരങ്ങളിൽ ഇങ്ങ് എത്തുന്നതാണ് ഇപ്പം വരാറായിട്ടുണ്ട് ഞാനൊന്ന് സാറിനെ ഒന്നു വിളിച്ചാൽ അപ്പം ഇൻകേസ് അത് സാർ എടുക്കാൻ വിട്ടുപോയെങ്കിൽ എടുത്തതു കൊണ്ട് വരാനായിട്ടേ ഒന്നു പറഞ്ഞിട്ട് ഞാനൊന്നു പറയാം കേട്ടോ ഞാൻ അതു കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ഞാനുടനെ തന്നെ ജോസിനെ വിളിച്ചോളാം അതേ അതേ ഈ നമ്പർ തന്നെ അല്ലേ ആ ഈ നമ്പറിൽ വിളിച്ചേക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓകെ